അടുത്തത് സന്ദര്ശിക്കാന് ഞാന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കുളു മണാലി എന്റെ ബൈക്ക് യാത്രകളിൽ എപ്പോഴും എന്റെ ഒരു സ്വപ്നമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കുളു മണാലി എന്നതാണ് എന്റെ ഫ്രണ്ട്സും അല്ലേ ഫാമിലിയിലുള്ള കുറച്ചു പേരും എല്ലാവരും ഇവിടെ സന്ദര്ശിച്ചിട്ടുണ്ട് അവരുടെ അയച്ചു തരുന്ന വീഡിയോസും അതുപോലെ യൂറ്റൂബുകളിലെ വീഡിയോസും കണ്ടിട്ട് എനിക്ക് വളരെ അതിയായ ഒരു ആഗ്രഹം സന്ദര്ശിക്കാൻ ഒരു അതിയായ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കുളു മണാലി അതുപോലെ തന്നെ ഞാന് സന്ദര്ശിച്ച ഒരു സ്ഥലം അത് നിര്ദേശിക്കാന് പറഞ്ഞാല് അത് ഞാൻ തീര്ച്ചയായും മൂന്നാര് ഉള്ള വട്ടവട എന്നുള്ള ഒരു ഗ്രാമമാണ് വളരെ പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമമാണ് മൂന്നാര് വട്ടവട എന്നുള്ളത് വട്ടവട വട്ടവട എന്നാണ് ഗ്രാമത്തിന്റെ പേര് അവിടെ നമുക്ക് നിരവധി സ്റ്റോബറി തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല മഞ്ഞു മൂടിയ മലകളും ഇത് മരങ്ങളുമെല്ലാം നമുക്ക് കാണാന് സാധിക്കുന്നു നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സും ആയിട്ടോ ഒക്കെ ചിലവഴിക്കാന് പറ്റിയ ഒരു നല്ല ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് മൂന്നാര് വട്ടവട എന്നുള്ള സ്ഥലം ഞാന് വട്ടവട എല്ലാവര്ക്കും നിര്ദേശിക്കുകയാണ് നിങ്ങളുടെ ട്രിപ്പില് അല്ലേ യാത്രയില് എപ്പോഴും പോകേണ്ട ഒരു സ്ഥലം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വട്ടവട എന്നുള്ളത്